മലയാള ഭാഷയ്ക്ക് കാലക്രമേണത്തിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് കാരണം നമ്മള് കുട്ടിയായിരിക്കണ ടൈമിൽ തന്നെ പഠിക്കുന്ന ടൈമില് ക്ലാസ്സില് ഇ മലയാളം സംസാരിക്കാറില്ല മലയാളം സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അഞ്ച് രൂപ ഫൈനാണ് കാര്യങ്ങളൊക്കെ പറയും അപ്പം നമ്മള് സ്കൂളിൻ്റെ സ്കൂളിംഗ് സിസ്റ്റത്തിൽ തന്നെ നമ്മളെന്താ മലയാളം മലയാളത്തിനോട് തന്നെ ഒര് പിള്ളേർക്ക് തന്നെ അങ്ങനെ സംസാരിക്കരുത് ഫുൾ ടൈം ഇംഗ്ലീഷിൽ സംസാരിക്കണം ഇങ്ങനുള്ള ഇത് കാഴ്ചപ്പാട് മനസ്സിൽ തന്നെ ഉണ്ടാകും അങ്ങനെ അതുപോലെ തന്നെ നമ്മള് പിള്ളേരൊക്കെ ആണേലും പണ്ടൊക്കെ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് തന്നെ ആശാൻറ്റക്കെ അടുത്ത് പോയി എഴുത്തിനൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നെ ഓലയിലും മീൻസ് തറയില് മണലൊക്കെ ഇട്ട് ഇങ്ങനെ ആ ആന്നൊക്കെ മീൻസ് എ ഇംഗ്ലീഷ് മലയാള അക്ഷരമാലകളൊക്കെ എഴുതി പഠിച്ചിട്ടൊക്കെയുണ്ട് പക്ഷേ ഇപ്പഴത്തെ പിള്ളേരെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെ ആശാൻറ്റടുത്ത് പോയി പഠനവും അങ്ങനെയൊന്നും നമുക്ക് കാണാൻ പോലും കഴിയുന്നില്ല അങ്ങനെ ഇപ്പം അങ്ങനത്തെ ആൾക്കാര് പോലും ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു ഇപ്പോൾ ഉള്ളവർക്ക് തന്നെ പിള്ളേർക്ക് തന്നെ മലയാളം എഴുതാനും വായിക്കാനോക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവര് പഠിക്കുന്നതൊക്കെ തന്നെ ഫുള്ള് ഇംഗ്ലീഷിലും സോങ് പാട്ടുകളൊക്കെ ആയാൽ പോലും നമുക്ക് ഇംഗ്ലീഷില് കുറെ പാട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അവരെപ്പോഴും പാടുന്നതും എടുക്കുന്നതും കാണുന്നതൊക്കെ പിന്നെ മലയാളത്തിലെ മലയാളത്തിലധികം പ്രാധാന്യം നമ്മള് സ്കൂളിംഗ് സിസ്റ്റത്തിലും അങ്ങനെ ഇപ്പം കൊടുക്കാറില്ല ഇപ്പം ഇനി വരും ജനറേഷൻ വരുന്നത് വരുന്നതനുസരിച്ച് അവര് അവര് കൂടുതലായിട്ട് തന്നെ ഇംഗ്ലീഷിലായിരിക്കും കൂടുതൽ പ്രിഫറു ചെയ്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാറുള്ളത് ഇപ്പഴത്തെ ഇപ്പഴത്തെ കാലഘട്ടത്തില് നമ്മടെ ലാംഗ്വേജിന് നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മള് കമ്പ്യൂട്ടറ് എടുത്ത് നോക്കുവാണെങ്കില്